ഏതൊക്കെ ഏതൊക്കെ വിത്താണ് വേണ്ടത് ഏതൊക്കെ പച്ചക്കറി ഏതൊക്കെ പച്ചക്കറീടെ വിത്താണ് വേണ്ടത് ആ പയർ

ആ

ഓക്കെ ഇപ്പം എ എങ്ങനത്തെ ആവശ്യങ്ങൾക്കാണ് വീട്ടിലാവശ്യങ്ങൾക്കാണോ അതോ കൃഷി ചെയ്ത് വിൽക്കാൻ വേണ്ടിയിട്ടാണോ ആ ഓക്കെ ഇപ്പം നമ്മുടെ കയ്യിൽ ചെറിയ രീതിയിലുള്ള വില്പനക്കൊക്കെ വേണ്ടിയിട്ടും കൃഷി വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഉള്ള ഇനമാണ് നമ്മുടെ കയ്യിൽ പ്രധാനമായിട്ടും ഉള്ളത് പിന്നെ നമുക്കിപ്പം ഈ ക്യ മഴയും കാലാവസ്ഥേടെ വ്യത്യാസമൊക്കെ വരുന്നോണ്ടുള്ള പ്രതിരോധ ശക്തി കൂടിയയിനം വിത്തുകളാണിപ്പോൾ വരുന്നത് അപ്പം ഗവൺമൻറ്റുവായിട്ട് ചേർന്നിട്ട് നമ്മളീ കൃഷി ഭവൻ വഴി കുറഞ്ഞ ഒരു നിരക്കിൽ ഇത് ഈ കർഷകരിലോട്ടെത്തിക്കാൻ വേണ്ടി പുതുതായിട്ടൊരു പദ്ധതി ഇട്ടിട്ടുണ്ട് അപ്പം ആ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ വിത്തെല്ലാം ഇപ്പോൾ നമുക്ക് കിട്ടുന്നത് അപ്പം റേറ്റും കുറച്ച് കുറവാണ് ആ ആ പാക്കറ്റായിട്ട് കിട്ടും ഇപ്പം ഒന്നെങ്കിൽ നമുക്ക് പയറിൻറ്റെ അതൊരു ഒരു ഒരു പാക്കറ്റിനകത്ത് ഒരു ഒരു പന്തൽ പന്ത് പന്തലിലിടാനുള്ള അത്രേം കാണും അതിനൊരു മുപ്പത് രൂപാ വെച്ച് ഒരു റേ ഒരു മൂന്ന് നാല് സെറ്റ് കാണും ആ അങ്ങാനായിട്ടാണ് വരുന്നത് അതിനകത്ത് പയറ് കാണും വെണ്ട പിന്നെ തക്കാളീടെ കാണും ചീരേം കൂടെ ഉൾപ്പെടുത്തീട്ടുണ്ട് ആ അങ്ങനാണ് മെയ്നായിട്ട് വരുന്നത് പിന്നെ അത് ആ ഇങ്ങനെല്ലാം കൂടെയുള്ള കിറ്റാണെങ്കിൽ കുറച്ചൂടെ റേറ്റാവും ഒരു അറുപത് രൂപയോളം ആകും ആ പിന്നെ ഈ ആ ഇല്ല കീടനാശിനി ഇല്ല ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ളതെല്ലാം ചെയ്തിട്ടു വരുന്ന വിത്തുകളാണ് മറ്റേ ജനിതകമായിട്ട് വ്യത്യാസം വരുത്തിയ വിത്തുകളാണ് പിന്നെ എന്നാലും ഇപ്പോഴത്തെ കാലാവസ്ഥയൊക്കെ മാറുന്നോണ്ട് അതിൻറ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരും എന്നാലും വലിയ രീതിയിലുള്ള ഇതുപയോഗിക്കേണ്ടി വരില്ല കീടനാശിനികളൊന്നും ഉപയോഗിക്കേണ്ടി വരില്ല ആ നമുക്ക് വീട്ടിലത്തെ ഒരു സാധാരണ രീതിയിൽ നമുക്ക് കണ്ട്രോൾ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പം നിങ്ങൾ ഇല്ല ഇല്ല ഇത് ഗവണ്മെൻറ്റിൻറ്റെ പദ്ധതിയായതുകൊണ്ട് നിങ്ങൾ പഞ്ചായത്തീന്ന് തന്നെ വന്ന് മേടിക്കണം കൃഷി ഭവൻ വഴിയും കൊടുക്കും ആ അത് അവിടെ വന്ന് മേടിക്കണം കാരണം ഇത് ആ ആ മറ്റേ സാധാരണ പരിപാടി അല്ല പിന്നെ നിങ്ങളുടെ വരുമ്പോഴ്ത്തേക്കിന് ആധാർ കാർഡിൻറ്റെ ഒരു കോപ്പിയും കൂടെ കൊണ്ട് വരണം ആ ഓക്കെ വേറെന്തെങ്കിലും സംശയമുണ്ടോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആ ഇപ്പം നമ്മുടെ ഒരു ഈ ആൾക്കാട് ഈ ഭാഗത്തെ മ മണ്ണിൻറ്റൊക്കെ ഒരിത് വെച്ചിട്ട് ഏറ്റവും യോജിച്ച വിത്താണ് ഇപ്പം വന്നിരിക്കുന്നത് പല മണ്ണിനും പല ഘടനയാണല്ലോ അതനുസരിച്ചുള്ളതാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്

ആ അതിൽ ആ ഓക്കെ വന്നോളൂ ആ ശരി എന്നാൽ ശരി